ഇന്ന് ഞാൻ തൃപ്രയാറിൽ നിന്ന് തൃശ്ശൂർക്കൊരു ബസ്സ് കയറിയിട്ടുണ്ടായിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്ന രസകരമായ കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പങ്കെടു പറഞ്ഞ് തരാൻ പോകുന്നത് ചില ആളുകളെല്ലാം ബസ്സിൽ കയറാത്തതുണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഒരു പാസഞ്ചർ ബസ്സിലാണ് ആദ്യം തന്നെ വലിയൊരു ബസ്സായിരുന്നു ഒരു പാട് പേരെ ഒന്നിച്ച് കൊണ്ട് പോകുക പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ നമ്മളുടെ വീട്ടിലെ പത്ത് വീട്ടിലത്തെ വണ്ടിയെടുക്കുന്ന സമയത്ത് ഒരേ ഒരു വണ്ടിയിൽ ഡീസൽ അടിച്ച് ഇത്ര അധികം പേരെ വേറെ വേറെ സ്ഥലത്തേക്ക് ഒന്നിച്ച് കൊണ്ടു പോയി ഇറക്കുകയെന്നു പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല അതുകൊണ്ടന്നെ ബസ്സ് യാത്ര എന്ന് പറഞ്ഞാൽ എന്നും നമുക്ക് തന്നെ ഒരു സന്തോഷം നൽകാവുന്ന യാത്രയാണ് കാരണം നമ്മൾ ഒരുപാട് സി എഫ് സി വിഷ പ പദാർത്ഥങ്ങൾ നമ്മൾ വണ്ടിയോടിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട് അപ്പം ഇത്ര അധികം പേർ വണ്ടിയോടിച്ച് പോയാൽ പോകാവുന്നതിൻ്റെ ഒരു പകുതിയോ അതിൻ്റെ കാൽ പോലും ഒരു ബസ്സിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ പോകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ പാസഞ്ചർ ബസ്സിന് ഒരു വലിയ പ്രത്യേകത അതുതന്നെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ബസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാഴ്ചകളാണെങ്കിൽ അതിലും വലുതായിരുന്നു ഡ്രൈവ് സീറ്റെന്ന് പറഞ്ഞാൽ ഒരു വലിയ രാജാക്കന്മാരുടെ ഒരു എന്താ പറയുക സിംഹാസനം പോലെയാണെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഹൈറ്റും ഭയങ്കര ഭംഗിയും അന്നേരം പല നിറങ്ങളിലും ആകർഷിക്കുന്ന തരത്തിലുള്ള സീറ്റായിരുന്നു ചേട്ടൻ്റെ സീറ്റ് ചേട്ടനാണെങ്കിൽ വളരെ വേഗത്തിലാണെങ്കിൽ നന്നായി സൂക്ഷിച്ചിട്ടാണ് വണ്ടിയോടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബസ്സിൽ നമ്മളിരിക്കുന്ന സീറ്റുകളെല്ലാം വളരെ നല്ല വണ്ടിയിലെ സീറ്റുകൾ പോലെയും വളരെ നല്ല ജനലുകളുമാണ് വലിയ ജനലുകളാണ് അതിന് ഗ്ലാസ്സില്ല അതുകൊണ്ട് തന്നെ നന്നായി കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു നല്ല സുഖത്തിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ മഴ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ചുറ്റി ചുറ്റി ജനലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ എപ്പോഴാണാവോ ഒന്ന് തുറന്നിട്ട് വണ്ടിയിൽ പോകാൻ പറ്റുക പിന്നെ ഈ വണ്ടി ഡീസലിനാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം പെട്രോളിൻ്റത്ര ചിലവും ഉണ്ടാകില്ല എന്നുള്ളതും വളരെ വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ബസ്സിലെ കിളി വളരെ നല്ലൊരാളായിരുന്നു നമ്മൾ പോകാനുള്ള സ്ഥലം എവിടെയാണ് വൃത്തിക്ക് ഇറങ്ങണ്ടേ എന്ന് പറഞ്ഞ് തരികയും ആ സ്ഥലമെത്തുമ്പോൾ ഇറങ്ങണില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യും അത്രയും അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ ഒരു രക്ഷയില്ല ഇന്നത്തെ ഈ ഒരു യാത്ര എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ